കായിക വിനോദങ്ങൾക്ക് ഇന്നു നമ്മുടെ സമൂഹം വളരെ അധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് കാരണം എപ്പോഴും നമ്മൾ പഠിക്കുന്ന കുട്ടികൾ പഠനത്തിൽ മാത്രം ശ്രദ്ധി ശ്രദ്ധിച്ച് മറ്റുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യാതെ ഇരിക്കുക അല്ലെങ്കിൽ കായിക വിനോദങ്ങളിൽ ഏർപ്പെടാതെ ഇരിക്കുക ആണെങ്കിൽ അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവർ ഈ പറയുന്ന രീതിയിലേക്കു കായിക വിനോദങ്ങൾ ഒന്നുമില്ലാതെ ജോലി മാത്രമായിട്ട് മുന്നോട്ടു പോകുകയാണെങ്കിലും ഒരു ആകെ പാടെ ഒരു പിരിമുറുക്കം ആയിരിക്കും പിരിമുറുക്കം എന്നു പറയുമ്പോഴത്തേക്ക് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ആകെ പാടെ ഒരു സ്ട്രെസ്സ് അങ്ങനെ മുൻപോട്ടു പോകാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് സാധിക്കത്തില്ല അത് തീർച്ചയായിട്ടും ഇടക്ക് നമുക്ക് കായിക വിനോദങ്ങൾ തീർച്ചയായിട്ടും ആവശ്യമുണ്ട് ചിലപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ പറഞ്ഞതു പോലെ സ്കൂളുകളിലൊക്കെ അതിനുവേണ്ടി തന്നെ പിരീഡുകൾ ഉണ്ട് പീ റ്റി പീരിഡുകളും മറ്റും ഉണ്ട് അപ്പോൾ അതിലൂടെ കുട്ടികൾക്ക് കുറച്ചു സമയം പഠിച്ചതിനു ശേഷം ഇടക്ക് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിലേക്കു മാറുമ്പോഴത്തേക്ക് അവർക്ക് ഒരു മാനസികമായിട്ടുള്ള ഉല്ലാസം തീർച്ചയായിട്ടും അവിടെ ലഭിക്കുകയാണ് അതുപോലെതന്നെ സമൂഹത്തിൽ ഇന്ന് ഒത്തിരി അധികം പ്രാധാന്യം ഈ പറയുന്നതു പോലെ കായിക വിനോദങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് ഈ ക്ലബ്ബുകൾ അതുപോലെയുള്ള അല്ലെങ്കിൽ മറ്റു സംഘടനകൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് ഫുട്ബോളേ അല്ലെങ്കിൽ ക്രിക്കറ്റ് അതുപോലെയുള്ള കായിക വിനോദങ്ങളൊക്കെ നടത്താറുണ്ട് കാരണം ഇന്നു സമൂഹവും ഒത്തിരി ആളുകൾ അതിലേക്ക് താത്പര്യം കാണിച്ചും വരുന്നുണ്ട് കാരണം ഇതെ എന്ന ഒരേ കാര്യങ്ങൾ തന്നെ ചെയ്തു മുൻപോട്ട് പോകുകയാണെങ്കിൽ അതായത് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം മാത്രം ആയിട്ട് പഠനം മാത്രം ആയിട്ട് മുൻപോട്ടു പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മറ്റുള്ള അസുഖങ്ങളൊക്കെ തീർച്ചയായിട്ടും വരാനായിട്ടുള്ള സാദ്ധ്യതകൾ ഉണ്ട് അതുപോലെ തന്നെ ജോലി ചെയുന്ന ആളുകൾ ജോലി മാത്രമായിട്ട് ഫുൾ ടൈം ഇന്നത്തെ സമൂഹത്തിന് ആണെങ്കിൽ ഒരു വ്യായാമം പോലും തീർച്ചയായിട്ടും ഐ റ്റി മേഖലകളിലൊക്കെ വർക്ക് ചെയുന്ന ആളുകളെ സംബന്ധിച്ചു പറയുകയാണെങ്കിൽ ഏതാണ്ട് മുഴുവൻ സമയം അവരുടെ ജോലി സംബന്ധമായിട്ട് ഇടക്ക് ഭക്ഷണം പോലും നോക്കാതെ ജോലി ചെയുന്ന ഒരു അവസ്ഥ വരുമ്പോൾ തീർച്ചയായിട്ടും കാണാൻ സാധിക്കും അങ്ങനെയൊക്കെയുള്ളവർക്ക് അധികം നാൾ ആ ഒരു ജോലി ചെയ്ത് മുൻപോട്ടു പോകാൻ സാധിക്കത്തില്ല കാരണം അവർക്ക് മറ്റുള്ള അസുഖങ്ങളും കാര്യങ്ങളുമൊക്കെ വരാനുള്ള സാദ്ധ്യതകൾ ഒത്തിരി ആണ് അപ്പോൾ ഇടക്ക് തീർച്ചയായിട്ടും ഇതുപോലെയൊക്കെയുള്ള സ്ട്രെസ്സ് വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കണ്ടിന്യുവസ് ആയിട്ട് നമ്മൾ കുറച്ച് ജോലിചെയുമ്പോൾ ഈ കായിക വിനോദങ്ങളിൽ നമ്മൾ തീർച്ചയായിട്ടും ഏർപ്പെട് ഏർപ്പെട്ടില്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ശാരീരികമായിട്ടുള്ള ഒരു ക്ഷമത വർദ്ധിപ്പിക്കാൻ ആയിട്ട് ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് അതു വലിയ ബുദ്ധിമുട്ട് ആയിട്ടു തീർച്ചയായിട്ടും വരും അപ്പോൾ അതുകൊണ്ട് കായിക വിനോദങ്ങൾ പിന്നെ നമ്മൾ തീർച്ചയായിട്ടും ആസ്വദിക്കണം ആസ്വദിച്ച് നമുക്ക് ഇഷ്ടം ഉള്ള കളികൾ അതെ ക്രിക്കറ്റിനോട് താത്പര്യം ഉള്ളവർ ആണെങ്കിൽ അതു ചെയ്യാം ഫുട്ബോളിനോടു താത്പര്യം ഉള്ളവർ ആണെങ്കിൽ അതു ചെയ്യാം അത് തീർച്ചയായിട്ടും അത് ചെറുപ്പം മുതലെ ആ ഒരു ശീലം കൊണ്ടുവരണം അതിൻ്റെ ഭാഗമായിട്ട് ആണ് സ്കൂളുകളിലൊക്കെ ഈ പറയുന്ന രീതിയിലേക്ക് ന്ന ഡ്രിൽ പിരീഡ് അല്ലെങ്കിൽ പി റ്റി എ അങ്ങനെയൊക്കെയുള്ള പിരീടുകൾ അതിനുവേണ്ടി തന്നെ മാറ്റിവെച്ചിരിക്കുന്നു അപ്പോൾ എല്ലാ സമൂഹത്തിനും അത് ഉണ്ട് അത് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് എടുക്കാനായിട്ട് ആ ഒരു രീതിയിലേക്ക് നമ്മൾ മുൻപോട്ടു പോകാനായിട്ടും തീർച്ചയായിട്ടും ശ്രമിക്കണം